ഇന്ത്യയിൽ പലതരത്തിലുള്ള മതങ്ങളുണ്ട് അത് വ്യത്യസ്തമായ ആചാരങ്ങളും അതുകൊണ്ടുതന്നെ ഇന്ത്യയിലുള്ളവർക്ക് വ്യത്യസ്ത ആഘോഷങ്ങളും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എനിക്കേറ്റവും കൂടുതൽ ആകർഷിച്ചത് ക്രിസ്തു മതത്തിലും മുസ്ലിം മതത്തിലും അവർ നിർബന്ധമായിട്ട് പള്ളിപ്പോണം പള്ളിയിൽ പോയിട്ട് കുട്ടികളാണെങ്കിൽ പ്ലസ്ടു വരെ പഠിക്കണം മുസ്ലിം മതത്തിലാണെങ്കിലും അവർക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ നിർബന്ധമായിട്ടും പോകണം ക്രിസ്തു മതത്തിലാണെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ അവർക്ക് പള്ളിപ്പോണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷോം എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ച കാര്യങ്ങളാണത് അത് നമ്മളൊരു ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടുതന്നെ ഹിന്ദു മതത്തിൽ ഇങ്ങനെയുള്ള ആചാരങ്ങളോ അങ്ങനെയുള്ള നിർബന്ധങ്ങളോ ഒന്നും ഞാൻ കാണാറില്ല അതുപോലെ ഞാൻ പല ഇവരെ ആയി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും അവരെ ക്രിസ്തു മതത്തിലുള്ള ആഘോഷങ്ങൾ അതായത് ക്രിസ്മസിനാണെങ്കിൽ പുൽക്കൂടൊരുക്കൽ അതുപോലെ അവരെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാറ് അത് പള്ളിയിലെ പള്ളിയിൽ പെരുന്നാള് അങ്ങനെയുള്ള പരിപാടിയിലെല്ലാം ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കലുണ്ട് പള്ളിയിലെടക്ക് പള്ളിയിലൊക്കെ പോകാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ അവർ പള്ളിയായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടായി നിന്നിട്ട് അവരെ ആ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നലുണ്ട് അതെന്നെ വളരെയധികം ആകർഷിച്ച സംഭവങ്ങളിലൊന്നാണ്